സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ശരിയായ രൂപകൽപനയും ആധുനികമായ പരിഹാരവുമാക്കാൻ ഒറിഗാമിയുടെ ആശയങ്ങൾ സഹായകമായേക്കാം

അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ സംഭവങ്ങൾ പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ ഒറിഗാമി ജപ്പാനെയും കാട്ടിൽ നമ്മളുടെ ഇന്ത്യയിൽ വളർന്ന് കൊണ്ടിരിക്കുകയാണ്

അതു തന്നെയാണ് ഈ ഇണക്കുന്നതിനുള്ള സാധ്യതകളും ആയി ഞാൻ കണക്കാക്കപ്പെടുന്നത്